അപ്പോൾ കേരളത്തിലെ വ്യവസായമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒന്നാണ് കേരളത്തിലെ വ്യവസായം അതായത് ബിസ്സിനസ്സുകാർക്ക് സംഭവിക്കുന്നത് കാരണം കേരളത്തിലിപ്പം ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെയാണ് കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ജി എസ് റ്റിയും കാര്യങ്ങളും കേരളത്തിൽ മാത്രല്ല മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ജി എസ് റ്റിയും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് നമുക്കിവിടെ ജി എസ് റ്റി ടാക്സ് അടക്കേണ്ട ഒരവസ്ഥയൊക്കെയാണ് അപ്പം ടാക്സ് അടക്കണ്ടതുകൊണ്ട് അതിൻ്റെ എമൗണ്ടും കൂടി കൂടുതലായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം പിന്നെ സാധാരണക്കാർക്ക് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങണങ്കിൽ ഒരുപാട് റേറ്റും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് അപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ കേന്ദ്ര ഗവണ്മെൻ്റിൻ്റെയും കേരളം ഗവണ്മെൻ്റിൻ്റെയും അടുത്തുനിന്ന് തന്നെ ഒരുപാട് പ്രശനങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പം ഓരോ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഇപ്പം കേരള ടാക്സ് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള എമൗണ്ട് ആകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എണ്ണയ്ക്ക് വില കൂടുതൽ ഇപ്പം നൂറ്റി പത്ത് രൂപേങ്ങാണ്ട് ഡീസ പെട്രോളിനെങ്ങാണ്ടുണ്ട് ആ അത് കേരളത്തിൽ പെട്രോളിന് ഡീസലിന് വില കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരള ടാക്സ് കൂടുതലായിട്ട് ആണുള്ളത് ഇപ്പം രണ്ട് രൂപ മൂന്ന് രൂപേങ്ങാണ്ടീയടുത്ത് കൂട്ടുകയൊക്കെ ഉണ്ടായി അപ്പം കേരള ടാക്സ് വല്ലാത്ത രീതിയിലുള്ള കൂടുതലാണ് ഉള്ളത് ഇപ്പം ആ അതായത് ബിസ്സിനസ്സുകാർക്ക് കൂടുതലായിട്ടും നികുതി ചുമത്തി അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതലായിട്ടും നികുതിയാണ് പിന്നെ വാണിജ്യ സിലിണ്ടറിനൊക്കെ നല്ല രീതിയിലുള്ള വിലയും കാര്യങ്ങളൊക്കെ ഇപ്പം കൂടിയിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത് തന്നെ നൂറ്റി പത്ത് രൂപയും കാര്യങ്ങളൊക്കെ കൂടി അങ്ങനെ പല രീതിയിലും ആണ് വ്യവസായം മുന്നോട്ട് പോകുന്നത് അപ്പം അതൊക്കെ വലിയ വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്കാണ് ഇപ്പം പോകുന്നത്